ഹലോ ആ പറഞ്ഞോളൂ ആ അതെ പറഞ്ഞോളൂ മാഡം എന്തായിരുന്നു ആ ഓക്കേ ആ ഓക്കേ ത്രീ മന്ത്സ് ആയിട്ടുള്ളൂ അല്ലേ ആ നമുക്ക് എങ്ങനെ കമാൻഡ്സ് ആണോ പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കാം ആ നമുക്ക് ഇപ്പോൾ എങ്ങനെയാണ് പുറത്തൊക്കെ ട്രെയിൻ ഇങ്ങനെ ഈ എന്താണ് പറയുക ഈ കണ്ണ് കാണാത്ത ബ്ലൈൻഡ്സിനൊക്കെ ട്രെയിൻ ചെയ്യിക്കാനാണോ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ വീട്ടിൽ വളർത്താൻ തന്നെയാണ് ആ അപ്പോൾ നമുക്ക് കമാൻഡ്സ് പഠിപ്പിച്ചാൽ പോരേ ഈ സിറ്റ് ഫുഡ് എടുക്കുന്നതിന്റെയും അതും ഇതൊക്കെയായിട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കാനില്ലേ ആ ഓക്കേ അപ്പോൾ ത്രീ മന്ത്സ് അല്ലേ പറഞ്ഞത് ആ ഓക്കേ അപ്പം മാഡം

ഉള്ള ആ ഓക്കേ പേപ്പർ ഉള്ള പട്ടിയാണല്ലേ

അപ്പം മാഡം നമ്മൾ ഇപ്പോൾ ചെയ്യുന്നതെന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ മാഡം അതിന്റെ പേപ്പറും പട്ടിനെയും കൊണ്ട് വന്ന് ഒരു ത്രീ മന്ത്സ് നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യിക്കണം അതായത് നമ്മൾ ഇത് എന്താണ് സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും പട്ടിക്ക് എന്താണ് പറയുക നമ്മളായിട്ടൊരു ഇതുണ്ടാവില്ല അതായത് നമ്മളും ആയിട്ടൊരു കണക്ഷനും ഉണ്ടാവില്ല അതിനെ നമ്മൾ കമാൻഡ്സ് മാത്രമാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ അത് ആര് പറഞ്ഞുകഴിഞ്ഞാലും അതുമായിട്ട് ത്രീ മന്ത്സ് നമ്മൾ മാക്സിമം ആണ് പറയുന്നത് കാരണം പട്ടി എത്ര നാളുകൊണ്ട് നമ്മൾ പഠിക്കും അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ ത്രീ മന്ത്സ് ചിലപ്പോൾ വേണ്ടി വരില്ല അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പഠിപ്പിച്ചെല്ലാം ഇതാക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്ന് കൊണ്ടുപോവാം കമാൻഡ്സ് മാത്രമാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ഇപ്പോൾ ആര് പറഞ്ഞുകഴിഞ്ഞാലും പട്ടി അനുസരിക്കും അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല നിങ്ങളായിട്ടും പട്ടി നല്ല ഇതായിരിക്കും ഇണങ്ങിയിട്ടുണ്ടാവും നിങ്ങൾക്ക് ഏതൊക്കെ കമാൻഡ്സ് ആണോ പഠിപ്പിക്കേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ചെയ്യും അവിടെ വന്ന് ട്രെയിൻ ചെയ്യിക്കണമെങ്കിൽ നമ്മൾ ചെയ്ത് തരും മാഡം പക്ഷേ അതിന് നമുക്ക് പെയ്മെന്റ് വ്യത്യാസം ഉണ്ടാവും ഓക്കേ അത് ആ ഓക്കേ എന്നാൽ മാഡം നമ്മൾ അവിടെ വന്ന് ചെയ്ത് തരുന്നതായിരിക്കും നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ ഇങ്ങനെ പൊറ അവിടെ വന്ന് ചെയ്യാത്തതിന്റെ കാരണം നമുക്ക് ഇതിൻ്റെ സ്കില്ലും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് ആൾക്കാരുമായിട്ട് സ്പ്രെഡ് ആവാതിരിക്കാനാണേ

ഓക്കേ നമ്മൾ ആ ഓക്കേ നമുക്ക് ടൈമിന് അനുസരിച്ചാണ് എത്ര നാളുകൊണ്ടാണ് നോക്കിയിട്ടാണ് പിന്നെ പഠിപ്പിക്കുന്ന കമാൻഡ്സിനനുസരിച്ച് നമുക്ക് റേറ്റ് വ്യത്യാസം വരും ആ ഓക്കേ മാഡം മനസ്സിലായി മനസ്സിലായി ഓക്കേ എന്നാൽ മാഡത്തിനെ വിളിക്കാം